സത്യം പറഞ്ഞാൽ കുറേ ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിച്ചിട്ടുണ്ട് കാരണം ഇവിടെ ബസ്സൊക്കെ കുറവാണ് പിന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൊക്കെ പോകുമ്പം നമ്മൾ ബസ്സൊക്കെ കുറവായത് കൊണ്ട് നമ്മൾ നേരം വൈകി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ സ്ഥാപനങ്ങളിലേക്ക് എത്തുന്ന അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് പിന്നേ നമ്മൾ വീട്ടിലേക്ക് തിരിച്ച് വരുമമ്പോൾ തന്നെ എന്താണ് ബസിലത്തെ ആളുകൾ അടുത്ത ബസ്സിലത്തെ ആളുകൾ ആദ്യത്തെ ബസ്സിൽ കയറാൻ പറ്റില്ല എന്ന് പറഞ്ഞത് കൊണ്ട് കുട്ടികളെ തിരിച്ചുവിടാറുണ്ട് അങ്ങനത്തെ കുറേ അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് പിന്നേ ഇപ്പം എല്ലാവരും എന്താണ് സ്വകാര്യ വാഹനങ്ങളും ഉപയോഗിയ്ക്കണോണ്ടന്നെ അവർ അതൊക്കെ കുറേ കുറവാക്കിയിട്ടുണ്ട് പാക്ഷേ ഇത് എന്താണ് നമുക്ക് എപ്പോഴും സ്വകാര്യ വാഹനങ്ങളുപയോഗിച്ച് പോകാൻ പറ്റാത്ത സമയങ്ങളും ഘട്ടങ്ങളുമൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മള് ബസ്സിനെ ഒക്കെ ആശ്രയിക്കുന്ന ടൈമിൽ നമുക്ക് ഇത് കുറവായി വരുമ്പോൾ അത് വളരെ ഒരു ബുദ്ധിമുട്ടാണ് ജനങ്ങൾക്ക് ഉണ്ടാക്കുക പിന്നെ നമ്മൾ അതിനു വേണ്ടിയിട്ട് ടൈം കാത്തു നിൽക്കുമ്പോൾ സമയം കാത്തു നിൽക്കുമ്പോൾ നമുക്ക് ഉദ്ദേശിച്ച രീതിയിൽ ബസ്സുകൾ എത്തിക്കോണം എന്നില്ല അതുപോലെ തന്നെ മറ്റു വാഹനങ്ങളും ഇങ്ങനെ അവരുടെ ജീവിത മാർഗം നോക്കിയിട്ട് നയിക്കുന്ന വാഹനങ്ങളും നമുക്ക് കിട്ടിക്കോണം എന്നില്ല അതുകൊണ്ട് കുറെ ബുദ്ധിമുട്ടുകളൊക്കെ ജീവിതത്തിൽ പലർക്കും ഉണ്ടാക്കിയിട്ടുണ്ട്